ഡാൻസ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്മാണ് ഡാൻസ് കളിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് എനിക്കെപ്പഴും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഡാൻസ് കളിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഡാൻസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എൻ്റെ വീടിൻ്റകത്ത് എപ്പഴും ഞാൻ ഡാൻസ് കളിക്കും ഇരുന്നുകൊണ്ട് എന്ത് എപ്പഴും സന്തോഷമായിരികുമ്പം ഒക്കെ ഞാൻ കുറെ ചെയ്യാറുണ്ട് ഇരുന്നുകൊണ്ട് അപ്പോഴൊന്നും എനിക്ക് വലിയ പ്രശ്നമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുല്ല അതെൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കളിക്കേണ്ടതാണ് പക്ഷേ ഞാൻ പുറത്തൊരു സ്റ്റേജില് കുറച്ചാളുകളുടെ മുമ്പില് കളിക്കുമ്പം അങ്ങനെ അല്ല എനിക്ക് കുറെ തയ്യാറെടുപ്പുകള് ആവശ്യം വരും അതിന് കുറെ പൈസ ചെലവുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഞാൻ കുറച്ചു നാളുകൾക്ക് ശേഷം കുറച്ച് ഗ്യാപ്പെടുത്ത് കളിക്കുവാണെങ്കിൽ അപ്പോൾ എൻ്റെ ബോഡി ഭയങ്കര പെയ്നായിരിക്കും എനിക്ക് അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഡാൻസ് കളിച്ച് തീർക്കുക എന്നുള്ളത് പിന്നെ നമ്മുടെ സ്റ്റേജിൽ കളിക്കുമ്പം തന്നെ ഇപ്പം നമുക്ക് പാട്ട് വേണമല്ലോ അപ്പം പാട്ടിന് എന്തെലും പ്രശ്നം പറ്റികഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളിയ്ക്കാൻ പറ്റില്ല ഇരുന്നോണ്ട് പിന്നെ അത് വീണ്ടും ക്ലിയറ് ചെയ്ത് ഇപ്പം പാട്ട് വേറെ ഏതെങ്കിലും ഡിവൈസില് വച്ചാലാണ് നമുക്ക് അത് കളിക്കാൻ പറ്റുകയുള്ളു അപ്പം അങ്ങനെ കുറെ പ്രശ്നങ്ങള് എനിക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കോസ്റ്റ്യൂമിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് അല്ലങ്കില് നമ്മള് വച്ചേക്കുന്ന വേറെ എന്തെലും ആക്സസറീസിന് എന്തെലും പറ്റി കഴിഞ്ഞാൽ അത് അത് കാരണം നമ്മളുടെ ഫുൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുൾ അതിലേക്ക് നമ്മുടെ ഡാൻസൊന്നും നമ്മള് ശ്രദ്ധിക്കില്ല പിന്നെ ഇപ്പം പ്പ നമ്മള് കളിക്കുന്നത് വെറുതെ ആയി പോകുവെ ആയിരുന്നുള്ളു നമുക്കൊട്ടും നമ്മുടെ ഡാ ഡാൻസില് ശ്രദ്ധിക്കാനൊന്നും നമുക്ക് പറ്റിയിരുന്നില്ല നമ്മള് എന്താണ് എവിടെയാണ് മിസ്റ്റേക്കെന്ന് വെച്ചാൽ അവിടെ ഒക്കെയായിരിക്കും നമ്മള് കൂളായിട്ട് ശ്രദ്ധിക്കുന്നത് ഇരുന്നോണ്ട് അപ്പം അതെന്ന് വെച്ചാൽ ഭയങ്കര ഒര് ബുദ്ധിമുട്ടാണ് അപ്പം ഇത് ഞാൻ എനിക്ക് ഇടയ്ക്കിത് ഉണ്ടാകാറുണ്ട് ഇങ്ങനെക്കെയാണ് ഞാൻ പിന്നെ വളരെ ശ്രദ്ധയോടെ കൂടി തന്നെ തരണം ചെയ്തിട്ടുമുണ്ട്